വസ്ത്രങ്ങൾ കഴുകാൻ ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് സോപ്പ് പൊടിയും പിന്നെ സോപ്പും വച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ സാധാരണ എല്ലാവരും ചെയ്യുന്നതു പോലെ തന്നെ ബക്കറ്റിൽ ആദ്യം സോപ്പു പൊടിയിൽ വസ്ത്രങ്ങൾ കുതിർത്തി വച്ചതിനു ശേഷം സോപ്പു ഉപയോഗിച്ച് നമ്മൾ സാധാരണ അലക്ക് കല്ലിൽ വച്ചിട്ടാണ് നമ്മൾ വസ്ത്രം കഴുകുന്നത് പിന്നെയുള്ളത് വസ്ത്രങ്ങൾ ഉണക്കുന്നത് നമ്മൾ മഴക്കാലത്തൊക്കെ ആണെങ്കിലാണ് വസ്ത്രങ്ങൾ ഉണക്കാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടനുഭവപ്പെടുന്നത് അപ്പം നമുക്ക് അകത്ത് ഉണക്കാൻ ഇട്ടാൽ തന്നെ നമ്മൾക്ക് പെട്ടെന്നായിട്ട് ഉണങ്ങി കിട്ടില്ല അതുകൊണ്ട് നമ്മൾ ആദ്യം കല്ലിൻ്റെ മേൽ വച്ചിട്ട് തന്നെ വസ്ത്രങ്ങൾ കഴുകിയതിനു ശേഷം നമ്മൾ വാഷിംഗ് മെഷീനിൽ ഡ്രൈയറിൽ ഇട്ടിട്ട് ഉണക്കും അപ്പോൾ ഉണങ്ങിയിട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്താൽ മതി അപ്പോഴേക്കും ആ വസ്ത്രം നമുക്ക് ധരിക്കേണ്ട രീതിയിൽ ആവശ്യത്തിനുള്ള ഒരു കംഫർട്ടബിളായിട്ടുള്ള ഒരു ഉണക്കമായിട്ട് കിട്ടും പിന്നെ വേനൽ കാലത്താണ് നമ്മൾക്ക് വസ്ത്രങ്ങൾ ഉണക്കാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും അനുഭവപ്പെടില്ല കാരണം എന്ന് വച്ചാൽ നമുക്ക് മുറ്റത്ത് അഴ അഴ കെട്ടിയിട്ട് അതിൽ നമ്മക്ക് വസ്ത്രങ്ങൾ ഉണങ്ങാൻ ഇടുന്നതാണ് അപ്പോൾ അത് നമുക്ക് വേനൽ കാലത്ത് ഉണങ്ങുന്നതിനെ പറ്റി നമുക്ക് വിഷമിക്കുക വേണ്ട അയേൺ ചെയ്തില്ലെങ്കിൽ ഒന്നും കുഴപ്പമില്ല നമുക്ക് ഇടുമ്പോൾ തന്നെ നല്ലൊരു ചൂടുള്ള ഇതിൽ തന്നെ നമുക്ക് അത് വസ്ത്രങ്ങൾ ഉണങ്ങി കിട്ടും മഴക്കാലത്തും മഞ്ഞു കാലത്തുമാണ് നമ്മൾ ഉണക്കിയാലും ശേഷം എല്ലാം ഒന്ന് അയൺ ചെയ്യുന്നതാണ് കുറച്ചു കൂടി നമുക്ക് ഇടാനും കംഫർട്ടബിളായിട്ട് ഉണ്ടാവുക പിന്നെ വെള്ളത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ കിണറുപയോഗിച്ചിട്ടാണ് അലക്കാൻ ഉപയോഗിക്കുന്നത് ഇപ്പം വെള്ളം കിണറുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തി ന് ഇതുവരെ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും അനുഭവപ്പെട്ടിട്ടില്ല കാരണം വെള്ളം നമ്മൾ ടാങ്കിൽ നിറച്ചതിന് ശേഷം പൈപ്പ് വഴി ബക്കറ്റിൽ പിടിച്ച് വച്ചിട്ടാണ് ചെയ്യുന്നത് അതായത് ആദ്യം ഡ്രസ്സ് ഇങ്ങനെ സോപ്പു പൊടിയിൽ കുതിർത്തിടാൻ വേണ്ടിയിട്ട് ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ചു വച്ചിട്ട് എല്ലാ ഡ്രസ്സും അതിൽ കുതിർത്തിടും അതിനു ശേഷം നമ്മൾ അലക്ക് അലക്കി കഴിഞ്ഞാൽ ഒരു മൂന്ന് ബക്കറ്റിൽ വെള്ളം പിടിച്ചു വച്ചതിനു ശേഷം ആദ്യം ഒന്നിൽ നമ്മൾ കഴുകും പിന്നെ അത് രണ്ടാമത്തെ ബക്കറ്റിൽ കഴുകി മൂന്നാമത്തെ ബക്കറ്റ് കഴുകിയതിന് ശേഷം അപ്പം ഏകദേശം നമുക്കൊരു ബക്കറ്റിൽ നമ്മളെ സോപ്പ് പത നമുക്ക് മനസ്സിലാവുമല്ലോ കഴുകുമ്പോൾ തന്നെ അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു നല്ല വണ്ണം ഒരു സോപ്പു പത വരുമ്പോൾ നമ്മൾ അത് കളഞ്ഞതിനു ശേഷം കുറച്ചും കൂടി വേറെ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് അങ്ങനെയാണ് കഴുകുന്നത് ഒരു വസ്ത്രം ഒരു ഒരു ബക്കറ്റിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം രണ്ടു മൂന്നു പ്രാവശ്യം കഴുകിയതിനു ശേഷം നമ്മൾ ഉണക്കാൻ ഇടുക ചെയ്യുക അപ്പോൾ വെള്ളം അങ്ങനെ ഒരുപാടായിട്ട് പൈപ്പ് തുറന്നിട്ടിട്ട് കഴുകുന്നത് അത്ര ഒരു പാഴാവൂല നമ്മൾ ഓൾറെഡി ബക്കറ്റ് പിടിച്ച് വച്ചിട്ടാണ് അത് വെള്ളം വെള്ളം നമ്മൾ കഴുകുന്നത് വസ്ത്രങ്ങൾ കഴുകാൻ ഉപയോഗിക്കുന്നത്